ഹലോ ഗുഡ് മോണിങ് എൻ്റെ പേര് ഗംഗ ഇത് അനുപമ ട്രാവൽ ഏജൻസി അല്ലേ ഞാൻ ഒരു പരാതി ബോധ്യപ്പെടുത്താനാണ് നിങ്ങളെ ഇപ്പോള് വിളിക്കുന്നത് കാര്യം എന്താണെന്നുവച്ചാൽ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതിനുവേണ്ടി നിങ്ങളുടെ ഏജൻസിയിലെ ഒരു ക്യാബാണ് ബുക്ക് ചെയ്തിരുന്നത് ഒപ്പം ഡ്രൈവറിനെയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങള് ഒരുപാടവനെ വിളിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഡ്രൈവര് കോള് എടുക്കുന്നില്ല ഇത് ശരിക്കും എനിക്ക് നല്ല അഭിപ്രായം നൽകാനുള്ളൊരു കാര്യമല്ല എൻ്റെ നെഗറ്റീവ് ഫീഡ്ബേക്കാണ് ഇതിലൂടെ ഞാ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപാട് ജോലി തിരക്കുകളും മറ്റുകാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു വിനോദയാത്രയ്ക്കായിട്ട് ഞാന് തീരുമാനിച്ചിരുന്നത് എൻ്റെ കുടുംബത്തോടൊപ്പം ഒരല്പം സമയം ചെലവഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ താമസമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കേണ്ട മര്യാദ കാണിക്കാമായിരുന്നു പക്ഷേ അത് കാണിച്ചിട്ടില്ല പോരാത്തതിന് ഡ്രൈവര് ഫോൺ എടുക്കുന്നുമില്ല എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ ഒരു മൂന്ന് ദിവസത്തെ യാത്രയുടെ പ്ലാനിങ്ങായിരുന്നു ഇന്നത് നടക്കാതെ പോയത് ശരിക്കും ഞങ്ങൾക്കിതില് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങള് ഏജൻസി ഹെഡ് ഡ്രൈവറെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങള് ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു അഥവാ ആ ഡ്രൈവറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ വ്യക്തിപരമായി എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റി വച്ചിട്ട് മറ്റൊരു ഡ്രൈവറിനെ ഞങ്ങൾക്ക് അനുവദിച്ച് തരാമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങള് വിളിച്ചിട്ട് പ്രതികരിക്കുന്നുമില്ല വളരെ മോശമായി ശരിക്കും ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല എനിക്കിത് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നിങ്ങൾക്ക് തരാനുള്ളത് അടുത്ത തവണയെങ്കിലും ബുക്കിങ്ങ് ചെയ്യുമ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കും നൽകുക അതനുസരിച്ച് ഞങ്ങൾക്കും കാര്യങ്ങൾ മുന്നോട്ടുകൊണ്ടുപോകാൻ ആകും നിങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക